കോഴിക്കോടുള്ള ഏറ്റവും വലിയ സംഭവമെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബീച്ച് തന്നെയാണ് അപ്പോൾ കുട്ടികളുള്ളവരൊക്കെ ബീച്ചിൽ വന്നിട്ട് ബീച്ചിൽ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഒരുപാടുപകരണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം കൂടുതലായിട്ട് അവിടെ സ്പെൻറ്റ് ചെയ്യാനാണ് ടൈം കാര്യം ആൾക്കാരുള്ളത് അതുപോലെത്തന്നെ ബീച്ചിൻ്റെ സൈഡിൽ പോയി ഇരിക്കലും ബീച്ചിൽ കളിക്കലും അതൊക്കെ ഒരു പ്രത്യേക വൈബാണ് അതിനൊക്കെയാണ് കൂടുതൽ ആൾക്കാരുള്ളത് അതുപോലെത്തന്നെ ഈ കോഴിക്കോടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുസ്ലിംസുകളുടെ ഒരിതാണ് അതായത് ഫുള്ള് മുസ്ലിംസുകളുടെ ഒരു മയമാണ് അപ്പോൾ കോഴിക്കോടെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് മുസ്ലിംസുകളുടെ പള്ളിപ്പെരുന്നാൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പം അതൊക്കെയെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ള് ഭയങ്കര വലിയ പരിപാടികളായിരിക്കും അതായത് ഇപ്പം ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് ഫുള്ള് ആൾക്കാരൊക്കെ വന്ന് അവരുടെ പ്രത്യേക ഇതെന്നു പറഞ്ഞാൽ ബിരിയാണി മന്തി അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അപ്പം അവർ കുറെ ഫുഡ്ഡൊക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ മേടിച്ച് അങ്ങനെ അവർ ഭയങ്കര കഴിയ്ക്കൽ ഫുഡ് കഴിയ്ക്കുക ഇതൊക്കെയാണ് അവരുടെ ഒരിത് അവിടുത്തെ പള്ളിപ്പെരുന്നാൾ തന്നെയാണ് ഏറ്റവും വലിയ ഇതെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണം മുസ്ലിംസുകളാണ് അവിടെ ഫുള്ളുള്ളത് അതുകൊണ്ട് മുസ്ലിംസിൻ്റെ പള്ളിപ്പെരുന്നാൾ തന്നെയാണ് അവിടുത്തെ ഏറ്റവും വലിയത് ഇതൊക്കെയാണ് ഇവിടുത്തെ പരിപാടികളെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ